ജെസ്സി ജോജിയുടെ വീട്ടിലെ കാര്യങ്ങളൊന്ന് സംസാരിക്കാമോ എൻ്റെ വീട് ചമ്പക്കുളത്താണ് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ ഭർത്താവ് രണ്ട് കുട്ടികളുമാണുള്ളത് ഭർത്താവ് ഇന്ത്യൻ ആർമിയിലായിരുന്നു സർവീസിൽ നിന്ന് റിട്ടയറായി രണ്ട് പിള്ളേരാണുള്ളത് മൂത്തയാൾ എംടെക് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ആൾ സി എ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ സാമാന്യം നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോകുന്നു പിള്ളാരുടെ പഠിത്ത കാര്യങ്ങളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ വീട് ആലപ്പുഴ ജില്ലയിലാണ് ചമ്പക്കുളത്താണ് കുട്ടനാട് താലൂക്കിൽ അപ്പം ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു നല്ല ഒരു സ്ഥലമാണ് കുട്ടനാടെന്ന് പറയുമ്പം തന്നെ അറിയാം ഒരു നല്ല ഒരു പ്രകൃതിരമണീയമായ കാഴ്ചകളും ഒക്കെ ഉള്ളതാണ് എങ്കിലും ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടനാടിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണ് ആ ഒരു മഴക്കാലമൊക്കെ ആവുമ്പോഴത്തേക്ക് വെള്ളം വെള്ളപ്പൊക്കം പിന്നെ അതേ കണക്കുള്ള ചളിയും ചേറുമൊക്കെയുള്ള വഴികളുമൊക്കെ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രദേശത്തെക്കുറിച്ചുള്ള രീതി ആ ഒരു സ്വഭാവങ്ങളൊക്കെ എങ്കിലും കുഴപ്പമില്ല ഞങ്ങളുടെ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്നു ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നു